ഹലോ ടോപ് ഫോം റെസ്റ്റോറൻറ്റ്

ആ ഓക്കെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാറുണ്ട് പിന്നെ കസ്റ്റമറൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാറുണ്ട്

ഓക്കെ

ഓക്കെ ഓക്കെ എന്ത് ഫുഡ്ഡൊക്കെയാണ് വേണ്ടത് ബിരിയാണി ഗീ റൈസ് വെജിറ്റെബിൾ ബിരിയാണി നോൺ വെജ് ഒക്കെ എല്ലാം ബിരിയാണിയും വരുന്നുണ്ട് പിന്നെ മന്തി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെയുണ്ട് ആ പിന്നെ സദ്യയും വരുന്നുണ്ട് സാദാ നോർമൽ സദ്യയും വരുന്നുണ്ട് അത് നിങ്ങൾ ഓഡർ ചെയ്യുകയാണെങ്കിൽ മാ ആ അതാണ് ഞാൻ ചോയി ആ ഓക്കെ എത്രണ്ണം എത്ര ആൾക്കാർക്ക് വേണ്ടി വരും എൺപത് പൊറോട്ടയോ അല്ല എല്ലാവർക്കും പൊറോട്ടയാണോ വേണ്ടത് അതോ ഗീ റൈസോ അങ്ങനത്തെ എന്തെങ്കിലും വേറെ വേണമോ ആ മീറ്റ് പൊറോട്ടയും റൊട്ടി പൊറോട്ടയും ഒക്കെ വരുന്നുണ്ട് ആ ഒരു കോംമ്പോ പോലെയാണോ ഞങ്ങൾ വ നിങ്ങൾ വരുന്ന സമയത്തേക്ക് കുക്ക് ചെയ്ത് വെയ്ക്കണമെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് കഴിഞ്ഞ് കുക്ക് ചെയ്തു തരാം ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ഓക്കെ ആ ഓക്കെ ആ അതിനെല്ലാറ്റിനും കൂടി ഓ റേറ്റ് ഞാൻ കാൽകുലേറ്റ് ചെയ്തു നിങ്ങൾ വാട്സഅപ്പ് ചെയ്തു തന്നാൽ മതിയോ നിങ്ങൾ അഡ്വ അഡ്വാൻസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ ഇതിനിപ്പോൾ എന്തായാലും ഒരു എട്ട് പൊ അല്ല എൺപത് പൊറോട്ടയെന്നൊക്കെ പറയുമ്പോൾ തന്നെ നാ എണ്ണൂറ് രൂപേൻ്റെയൊക്കെ അടുത്ത് വരും പിന്നെ ഇതൊക്കെ വരുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ ഓൾറെഡി അഡ്വാൻസ് ചെയ്താൽ മതി ബാക്കി നമുക്കപ്പം കൊടുക്കാം ആ ഉണ്ട് ഓക്കെ താങ്ക് യൂ